ഉദ്യാനം ഒരുക്കുക എന്നത് വളരെ സന്തോഷം തരുന്നു മാനസികമായും ശാരീരികമായും വളരെ വിനോദം തോന്നുന്ന ഒരു കാര്യമാണ് നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ചെടികൾ വച്ചു പിടിപ്പിക്കുകയും അവ വളർന്ന് അവയിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ അവയിൽ പൂക്കൾ പൂക്കുമ്പോൾ പഴങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന സുഖം പറഞ്ഞ് അറിയിക്കുന്നതിലും അപ്പുറമാണ് വളരെ സുഖം തരുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ നട്ട ചെടികളിൽ നിന്ന് പൂക്കൾ ഉണ്ടാകുന്നു ഫലങ്ങൾ കാണുന്നു വളരെ മനോഹരമായും കലാ ബോധത്തോട് കൂടിയും നമ്മൾ ഒരുക്കുന്ന ഉദ്യാനം അത് പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്തു മനോഹരമായി വിളഞ്ഞു നിൽക്കുന്നത് കാണാൻ ഒരുപാട് സുഖമാണ് ആ അനുഭവം അത് അനുഭവിച്ച് അറിയേണ്ടത് തന്നെയാണ് അതൊരു വാക്കുകളുടെ വർണ്ണിപ്പിക്കുക വർണ്ണിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ കാര്യങ്ങൾ തന്നെയാണ് എന്നിരുന്നാലും ആ പൂക്കളുടെ ഭംഗിയും എല്ലാം ആസ്വദിച്ച് നിൽക്കുക എന്ന് പറയുന്നത് വളരെ രസകരമായ കാര്യം തന്നെയാണ്